അതിഥികളെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ജഡായുപ്പാറ അവിടെ റോപ്പ് വേയിലൂടെ നമ്മള് പോയി ജടായൂപ്പാറയുടെ ഏറ്റവും മുകളിലുള്ള സ്ഥലത്തെത്തിക്കഴിഞ്ഞാല് നല്ല രസമാണ് ഒരൂ ഉച്ചസമയത്തെവിടെത്തുകയാണെങ്കിൽ നല്ല കാറ്റാണ് കാറ്റത്ത് നമ്മുടെ വസ്ത്രങ്ങളിങ്ങനെ പറന്നു പോകുന്ന പോലെ തോന്നും അത് കാണാൻ വല്ലാത്തൊരനുഭവമാണത് അവിടെച്ചെന്നു കഴിഞ്ഞാല് നല്ല ആമ്പ്യൻസാണ് അത് ആ ഒരു ഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ട് അതും അതുപോലെ തന്നെ ഫോട്ടോ ഷൂട്ടിനായിട്ട് പറ്റിയ കുറെ സ്ഥലങ്ങളുണ്ടവിടെ എവിടെ നിന്നാലും അവിടെ നല്ല കാറ്റാണ് അതാണതിന്റെ ഒരു പ്രത്യേകത മറ്റൊന്ന് തിരുവനന്തപുരത്തെ സൂ ഉണ്ട് അത് കാഴ്ചബംഗ്ലാവ് അവിടെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് അതിനേയൊക്കെക്കണ്ടും അതുപോലെയാ വൃക്ഷത്തണലിരുന്നും ഒക്കെ നമുക്ക് അവടെല്ലാം ചുറ്റും നടന്നുകാണാവുന്നൊരു സ്ഥലമാണ് അതിഥികളാകുമ്പോള് നമുക്ക് തമാശ പറഞ്ഞും കാര്യങ്ങള് പറഞ്ഞുമൊക്കെ പോകാൻ പറ്റിയ രണ്ട് സ്ഥലങ്ങളാണിത് അപ്പോള് ഫോട്ടോക്കായിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിലുമൊക്കെ പല സ്ഥലങ്ങളുമുണ്ട് അതൊക്കെ ഏറ്റവും മനോഹരമായിട്ട് കാണുന്നതാണ് അതുകൂടാതെ നമുക്ക് പത്മനാഭപുരം കൊട്ടാരം അത് അവിടെയും ഈ പറഞ്ഞപോലെ അതിഥികളുമായിട്ട് പോകാവുന്നൊരു സ്ഥലമാണ് അവിടെ നമുക്ക് കൊട്ടാരത്തിനകമൊക്കെക്കണ്ട് നല്ല രീതിയില് നല്ലൊരു വൈബാണ് ഒരു പ്രത്യേക ഒരനുഭവമാണ് അതിനകത്തുകൂടെ കയറി ഇറങ്ങുമ്പോള് എന്നുള്ളതാണ് പിന്നെ പറഞ്ഞാല് കൊല്ലത്ത് സാമ്പ്രാണിക്കൊടി സാമ്പ്രാണിക്കൊടി നദിയിലിറങ്ങി എല്ലാവരുംകൂടൊരുമിച്ച് കൈ കോർത്താ വെള്ളത്തിലൂടെ പോകുന്ന ആ ഒരനുഭവമൊക്കെ നല്ല ഒരനുഭവമാണ് വളരെ രസകരമായ നമ്മുടെ ഏറെ കുളിർമ്മ നൽകി നമ്മള് പൊട്ടിച്ചിരിച്ച് അതിലേക്ക് ആ ഒരു അനുഭവം നമുക്ക് പങ്കിട്ട് കൊണ്ടുപോകാന്നതാണ് അപ്പോള് നമ്മുടെ അതിഥികൾക്കുമതൊരു സന്തോഷമാകും നമുക്ക് ഒരുമിച്ച് ഫോട്ടോയ്ക്കുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മടെ കാല് ഒരുപാട് ആഴമില്ല അത്രയും നമ്മുടെ കാലിന്റെ ഏകദേശം മുട്ടിന് താഴെ വരെയെ ഉള്ളൂ അവിടെ വെള്ളം അതിനകത്തുകൂടെ നമുക്ക് നല്ല സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് മനസ്സിലെ ടെൻഷനുമൊക്കെക്കളഞ്ഞ് റിലാക്സ്ഡായിട്ട് നമുക്ക് നടക്കാവുന്നതാണ് അങ്ങനെയൊരു മൂന്ന് സ്ഥലമാണ് എന്റെ ഓർമ്മയിൽ വരുന്നത് ഈ ഈ വക സ്ഥലങ്ങളില് നമുക്ക് എല്ലാവരുങ്കൂടെപ്പോയാലൊരു നവ്യ അനുഭവമായിരിക്കും തന്നേയുമല്ല എല്ലാവരുങ്കൂടെ ചേർന്ന് രസിച്ച് പോകാന് പറ്റിയ സ്ഥലങ്ങളുമാണ് ഇവിടെ അതുകൊണ്ട് ഞാന് ഉദ്ദേശിക്കുന്നത് അതിഥികളുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങള് ഇവയാണ് ഇവ മൂന്നെണ്ണം